ഞാൻ ആണെങ്കിൽ എൻ്റെ ചേച്ചിയുടെ വിവാഹത്തിനാണ് ഡാൻസ് കളിച്ചിട്ടുള്ളത് പിന്നാണേൽ നൃത്തം പഠിപ്പിക്കുന്നച്ച കസിൻസിനൊക്കെ പഠിപ്പിക്കും അല്ലാതെ ആരെയും അങ്ങനെ നൃത്തം പഠിപ്പിക്കാറൊന്നുമായിട്ടില്ല കൊറിയോഗ്രാഫറൻറ്റടുത്തൊന്നും പോയി ഡാൻസ് പഠിച്ചിട്ടൊന്നുമില്ല ഫോണി നോക്കി പഠിക്കും പണ്ട് ന്ന ഡാൻസ് കളിക്കാനായിട്ട് എളുപ്പമൊക്കെയാണ് പക്ഷേ എന്നാലും അതിൻറ്റേതായിട്ടുള്ള പാടും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് പിന്നയാണേൽ സമയം എടുക്കോന്ന് പറഞ്ഞാൽ ഇപ്പോൾ എത്ര അരമണി അരമണിക്കൂറിനുള്ളിൽ അതിൻറ്റെ ആ ഒരിത് അനുസരിച്ചിരിക്കും എത്ര മിനിറ്റൊണ്ട് അല്ലെ സ്റ്റെപ്പ് അനുസരിച്ചിരിക്കും പല സ്റ്റെപ് നോക്കിയായിരിക്കും ഡാൻസ് എടുക്കുന്ന ഒരു പാട്ടിൽ തന്നെ പല സ്റ്റെപ്പും നോക്കിയായിരിക്കും എടുക്കുന്നത് ഇതിലേത് കളിക്കണം എവിടെന്നെടുക്കണം സ്റ്റെപ്പുകൾ എളുപ്പമുള്ള സ്റ്റെപ്പായിരിക്കും കൂടുതലും അങ്ങനെ വലിയ ഡാൻസ് കൊറിയോഗ്രാഫറിൻ്റടുത്തൊന്നും പോയി കളിക്കാൻ പഠിക്കാൻ പോയി പറ്റിയ വലിയ ഡാൻസൊന്നുമറിയത്തില്ലേ തന്നെയും എളുപ്പം കുഴപ്പമില്ല ഡാൻസ് എളുപ്പമായിട്ട് കളിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടാണ് ഈ ഡാൻസ് കളിക്കുന്നതും പഠിപ്പിക്കാനും ഭയങ്കര ഇഷ്ടാണ് ഡാൻസ് പിന്നാണേൽ എനിക്ക് ഏറ്റോം ഇഷ്ടം തോന്നിയിട്ടുള്ളത് നവ്യ നായരുടെ ക്ലാസിക്കൽ ഡാൻസാണ് ഏറ്റോം ഇഷ്ടം തോന്നിയ കൂടുതലും നവ്യ നായരുടെ യൂട്യൂബിനകത്ത ക്ലാസികൽ ഡാൻസിൻറ്റെ വീഡിയോ കണ്ടാൽ കൂടുതലും ഞാൻ ക്ലാസിക്കൽ ഡാൻസ് കളിക്കുമ്പോൾ നവ്യ നായരുടെ നോക്കിയാണ് കളിക്കുന്നത് എൻ്റെ ഏറ്റോം ഇഷ്ടപ്പെട്ടൊരു ഡാൻസർലൊരാളാണ് നവ്യ നായർ പിന്നാണേൽ കൊറിയോഗ്രാഫറിൻറ്റടുത്തല്ല ഞങ്ങളുടെ സ്കൂളിൽ ഡാൻസ് പഠിപ്പിക്കുന്ന ഞങ്ങളുടെ സ്കൂളിലൊരു ടീച്ചറ് വരും ആഹ് ടീച്ചറിൻറ്റടുത്തുന്ന് പഠിക്കുവാൻ കൊച്ചിലെ അല്ലാതെ അതിനായിട്ട് സ്പെഷ്യലൈസ്ഡായിട്ടൊന്നും ആരെയും അടുത്ത് പോയി ഡാൻസൊന്നും പഠിച്ചിട്ടില്ല സമയം നമ്മുടെ കൂടെ കളിക്കുന്നവരുടെ സമയം പോലെ ഇരിക്കും നമ്മളോടൊപ്പം ഒരാൾ പഠിപ്പിക്കാൻ എടുക്കുമ്പോൾ നമ്മൾ ഇപ്പോൾ ഒട്ടുമറിയത്തില്ല ആ കൊച്ചിനെയും കൂടി എങ്ങനെ അത്രയും നേരം ആ കൊച്ചിനെ മാത്രം കയറിയത് പഠിപ്പിക്കും ആ കൊച്ചൂടെ ഒപ്പം വന്ന അതിൻറ്റെ ഒപ്പം എല്ലാവരും ഒപ്പത്തിനൊപ്പമാണല്ലോ ഞാൻ എത്ര പഠിച്ചു അവരിത്രയും കിടന്നോട്ടെ എന്നുള്ള ഒരു ഇതൊന്നും ഞാൻ നോക്കത്തില്ല അവരോടൊപ്പം തന്നെ പഠിച്ച് പഠിച്ച് അവരെ കൂടെ കൊണ്ട് വന്നായിരിക്കും ഡാൻസ് അവരോട് കളിക്കുന്നത് പിന്നെ ആണെങ്കിൽ പേരെൻസിൻറ്റെ മുന്നെ കളിക്കുന്നതിന് കുഴപ്പമില്ല ഇപ്പം കുറെ ബന്ധുക്കൾ കാണുന്ന മടി കാണുന്നവർ കാണും ചിലപ്പോൾ ആരേലും കളിയാക്കൊന്നുള്ളൊരു തോന്നൽ കാണും മടിയായിട്ട് അങ്ങനെ തോന്നിയിട്ടില്ല എന്നാ പിന്നാണേൽ മടി തോന്നും ചിലവരോട് മുന്നേ കളിക്കാനായിട്ട് മടി തോന്നും നമ്മുടെ അടുത്ത ബന്ധുക്കളാണേൽ തോന്നിയിട്ടില്ല പേരെൻസിൻറ്റെ മുന്നിലും ഒക്കെ നല്ലതായിട്ട് ഡാൻസ് കളിക്കും ഞാൻ ഡാൻസ് വിവാഹവേദി കളിച്ചത് പറയുമ്പം എൻറെ ചേച്ചീടെ വിവാഹവേദീൽ ഞാനും എൻ്റെ കസിൻസൂടാണ് കളിച്ചത് അതിൽ ഒരാൾ പഠിച്ചെടുക്കാൻ താമസം വന്നോണ്ട് ഞങ്ങൾക്ക് ഒത്തിരി അങ്ങനെ അർമാദിക്കാനൊന്നും പറ്റിയില്ല പിന്നെ ആണേൽ അടിപൊളിയായിട്ട് ഡാൻസ് കളിച്ചു